ഒരു സംരംഭം അത് ചെറുകിട സംരംഭമാണോ വൻകിട സംരംഭം ആണോ എന്നതിനെ ആശ്രയിച്ചിട്ടാണ് അതിൻറെ മൂലധനത്തിൻ്റെ കണക്ക് ഉണ്ടാകുന്നത് മൂലധനം സ്വയമായി കണ്ടെത്തുക അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളെ സഹായത്തോട് കൂടിയിട്ടോ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് ചെറിയ ചെറിയ സംരംഭങ്ങളാണെങ്കിൽ അതിന് മറ്റൊരാളുടെ സഹായല്ലാതെതന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയെന്നു വരും അതിന് ചട്ടങ്ങള്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഓരോ സ്റ്റേറ്റിലും ഓരോ തരത്തിലും ചട്ടങ്ങളാണ് അതിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം അതുപോലെ തൊഴിൽ വ്യവസായം വ്യവസായത്തിൽ രജിസ്റ്റർ ചെയ്യണം ഈ രജിസ്ട്രേഷനും അതി അതിൽ അതുപോലെ ഓരോ സംരംഭങ്ങൾക്കും ഓരോ തരത്തിലുള്ള ലൈസൻസുകൾ വേണം അത് ആ സംരംഭത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ലൈസൻസുകൾ ഉണ്ടാക്കേണ്ടത് അത് ഫയർഫോഴ്സിനെ ഉണ്ടാവണം അതല്ലെങ്കിൽ ആ ഓരോ ത് ആ സംരംഭം ആ നാടിൻ്റെ ചുറ്റുപാടുകളെ എങ്ങനെ ബാധിക്കും അതിനനുസരിച്ചുള്ള ലൈസൻസുകൾ ആണ് എടുക്കേണ്ടത് മെയിൻ ആയിട്ട് പഞ്ചായത്തിലെ ലൈസൻസും മറ്റേ ഇവരുടെ തൊഴിൽ മേഖലയിലുള്ള ഓഫീസുകളെ ലൈസൻസുകൾ ഒക്കെയാണ് എടുക്കേണ്ടത് മൂലധനം വലിയ മൂലധനം വേണം ഉള്ള പരിപാടി തുടങ്ങണമെങ്കിൽ വലിയ മൂലധനം വേണം ഒരു വിധം ബിസിനസ് ഒക്കെ ഇപ്പോൾ സാധാരണ തുടങ്ങിയാൽ പോലും ഒരു വിധം നല്ല മൂലധനം വേണം അല്ലാതെ ചെറുകിട തുടങ്ങിയിട്ട് ഒന്നും ഇന്നത്തെ കാലത്ത് പിടിച്ചുനിൽക്കാൻ പറ്റില്ല കാരണം ഇവിടെ വമ്പൻമാരോടാണ് ഏറ്റുമുട്ടേണ്ടത്